അതെ ആരാണ് ഓക്കെ എന്ത് ഡ്രസ്സ്സാ തയ്ക്കേണ്ടത് മാഡം ഓക്കെ എത്ര ദിവസത്തിനുള്ളിൽ തയ്ച്ചേരണം ഇതെക്കാണ് വേണ്ടത് അയ്യോ രണ്ട് ദിവസത്തിനുള്ളിലൊന്നും തയ്ക്കൽ നടക്കില്ല ഇവിടെ അത്യാവശ്യം തയ്ക്കാനായിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ ഫംഗ്ഷനിംഗിൻ്റെയുണ്ട് പിന്നെ അത് കൂടാതെ യൂണിഫോമ് തയ്ക്കാനുണ്ട് വിഷൂൻ്റെ ഡ്രസ്സുകൾ തയ്ക്കാനായിട്ട് വന്നിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തയ്ക്കൽ നടക്കുന്നുണ്ടാവില്ല ഈ രണ്ട് ഡ്രസ്സും രണ്ട് ദിവസത്തിൽ തന്നെ തയ്ക്കണന്നുണ്ടോ അതെയോ എന്നാൽ ഒരു ചുരിദാറ് ഞാൻ വേഗം തയ്ച്ച് തരാം ആ പക്ഷേ നിങ്ങളത് പെട്ടെന്നിവിടെ എത്തിക്കണം ഒരു മണിക്കൂറിനുള്ളിൽ എത്തിക്കാണെങ്കിൽ നമ്മളത് വെട്ടിയിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റാഫത് വേഗം തയ്ക്കും അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കാണെങ്കിൽ ആ അങ്ങനെയാണെങ്കിൽ അത് മറ്റന്നാൾക്ക് തരാം പിന്നത്തെ ഡ്രസ്സ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാട്ടോ ആ ലൈനിംഗിട്ടുള്ള ചുരിദാറാണെങ്കിൽ സാധാരണ പോലെ തയ്ക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന് പൈസ കൂടും ആ എങ്ങനത്തയാണ് നിങ്ങൾ പറയാണെങ്കിൽ നമുക്ക് നോക്കാം ഓക്കെ ആ കുഴപ്പമില്ല നമ്മളിവിടെ ഷോപ്പിൽ ഒരുപാട് തയ്ച്ചിട്ടിട്ട് മോഡലുകളുണ്ട് അപ്പോൾ നിങ്ങൾ വന്നിട്ട് നോക്കാണെങ്കിൽ നിങ്ങക്കിഷ്ടപ്പെട്ട മോഡല് പറഞ്ഞ് തരാണെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ അംബ്രല്ല കട്ടിംഗൊക്കാവുന്ന സമയത്ത് അത്യാവശ്യം തുണി നമുക്കാവശ്യം ഉണ്ടായിരിക്കൂട്ടാ രണ്ടര മീറ്ററ് തുണി കൊണ്ട് നമുക്ക് നടക്കില്ല ആ ഒരു നാല് മീറ്റർ തുണി ഒക്കെയുണ്ടെങ്കിൽ നമുക്കത് നടക്കൂള്ളൂ അതിനനുസരിച്ച് തുണി കൊണ്ട് വരാണെങ്കിൽ നമുക്കത് പോലെ തയ്ക്കാം പിന്നെ കഴുത്തിൽ വല്ല വർക്കൊക്കെ ഉണ്ടൂന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് വെക്കണന്നുണ്ടെങ്കിൽ അതൊക്കെ പറയണേട്ടോ ആ സമയത്ത് നിങ്ങൾ വന്നിട്ട് പറഞ്ഞ് തന്നാൽ മതി ആ കട ആറ് മണി വെരെ ഉണ്ടായിരിക്കൂട്ടാ ഇനിയിപ്പോൾ ഒരു മൊടക്കൊന്നുല്യ അങ്ങനെ കുറെ നമുക്ക് തയ്ക്കാനുള്ളത് കൊണ്ട് ഞായറടക്കം പ്രവൃത്തി ദിവസമായിരിക്കും കാലത്ത് ഒരു ഒൻപത് മണി മുതൽ വൈകീട്ട് ഏഴ് മണി വരെ ഏഴ് മണി വെരെ ഉണ്ടാവൂട്ടാ ആ പക്ഷേ നിങ്ങൾ നേരത്തെ വന്നോളൂ നിങ്ങൾ നേരത്തെ വന്നോളൂ നിങ്ങൾടെ ഒരു മണിക്കൂറിനുള്ളിൽ കിട്ടി കഴിഞ്ഞാലാണ് നമുക്കത് വേഗം തയ്ക്കാൻ പറ്റൂള്ളൂ ആ ആയിക്കോട്ടെ ആ വരുന്ന സമയത്ത് അളവ് ചുരിദാറുണ്ടെങ്കിൽ അത് കൊണ്ട് വന്നോളൂ അല്ല നേരിട്ട് അളവെടുക്കാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണൂട്ടാ